പ്രാണികളുടെ കടിയേറ്റു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചികിത്സയാണ് ഉള്ളത് എന്നു മാത്രമല്ല ഇപ്പോൾ തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ചുണ്ണാമ്പ് അഥവാ കുമ്മായം തേക്കുകയാണ് പരുപാടി എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ പ്രാണികൾ കടിച്ചു കഴിഞ്ഞാൽ പലരും പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ടാവാം അങ്ങനെ പലതും ഉണ്ടാവാം ഇനി വേറെ തരം പ്രാണികൾ അതായതിപ്പോൾ വേറെ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ചുണ്ണാമ്പിനു പകരം പല പച്ചില മരുന്നുകൾ അരച്ച് അതിൻ്റെ ചാറ് പിഴിയുകയാണ് ചെയ്യുക എന്നുമാത്രമല്ല ഇനി വേറെ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള വിഷാംശം ഉള്ള പ്രാണികൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവയെ വലിയ തരത്തിലുള്ള വൈദ്യന്റെ അടുത്തും അല്ലെങ്കിൽ നാട്ടുവൈദ്യത്തിലും കൂടുതലായിട്ടും പലതരം ചെടികളിൽ നിന്നും തുളസിച്ചെടിയിൽ നിന്നും എടുക്കുന്ന വേര് കറക്റ്റായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക